ട്രാവൽ ഏജൻസി അല്ലേ ഇവിടെ കാസർഗോഡിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ആ അതെയതെ ആട മാലിക് ദിനാർ ജുമാമസ്ജിദ് ഇല്ലേ തളങ്ങര ആടത്തേക്ക് എത്രയാവും ഫുഡിൻ്റെ അല്ല ട്രാവലിങ്ങ് എക്സ്പെൻസ് മാത്രമായിട്ട് എത്രയുണ്ടാവും ഡിസ്കൗണ്ട് ഉണ്ടോ

അതെയോ അപ്പോൾ ഡിസ്കൗണ്ട് ഒന്നുമില്ലല്ലേ ഇല്ല അത് ഇപ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിനി കേൾക്കുന്നുണ്ടായി അങ്ങനെ വിളിച്ചതാണ് ഫുഡ് എന്താണിങ്ങനെ ഫുഡിൻ്റെ എല്ലാം ആ ആ അതെ ആ അടുത്ത ആഴ്ചത്തേക്ക് ആളെ ഇടാനാണോ ആ അതെയോ ആയി ഞാൻ വിളിക്കാം ആ